അങ്ങനെ വ്യത്യസ്ത ഭാഷ പ്രാദേശിക സംസാരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഒന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് ഈ ഹിന്ദി അപ്പോൾ ഇതുപോലുള്ള ഇപ്പം ഈ ഹിന്ദി വരുന്ന ര സ്ഥലങ്ങളൊക്കയില്ലേ സംസ്ഥാങ്ങളൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തമിഴ്നാട്ടിലൊക്കെ ചെല്ലുകയെന്ന് വെച്ചാൽ നമുക്ക് മലയാളം അറിയാവുന്നത് കൊണ്ട് തമിഴ് നമുക്ക് കുറച്ച് അറിയാം പിന്നേ ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് അറിയാം പിന്നെ ഈ ഹിന്ദിയൊക്കെയാണ് പിന്നെ കുറച്ചെങ്കിലും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയൊരു സന്ദർഭമെന്ന് വെച്ചാൽ ഒരു മഹാരാഷ്ട്രയിൽ ഒക്കെ പോയി കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ ഒരു ഇതുണ്ടായിട്ടുണ്ട് ഒരു ഒരു തീർത്ഥാടന സംഘത്തിൻ്റെ കൂടെ പോയതായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഹിന്ദി അറിയാൻ മേലാത്തതിൻ്റെ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അഥവാ ഒരു അനുഭവം മാത്രമാണല്ലോ പിന്നെ ഉള്ളത് വല്ല തമിഴാണെങ്കിലും നമുക്ക് അറിയാം ആ ഒരു എന്താണ് ആശയവിനിമയം നടത്താൻ ഏറ്റവും എല്ലാ ഭാഷകളും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യും